നമസ്കാരം പറയു അതെ അതെ പറഞ്ഞോളൂ ആ ആ ഓക്കെ ഓക്കെ ഞങ്ങൾ ഇപ്പോൾ മിനിഞ്ഞാന്നത്തോടെ ഫുട്ബോളിൻ്റെ കോച്ചിങ്ങ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്

അഞ്ചാം ക്ളാസ്സിന് മുകളിലുള്ള എല്ലാ കുട്ടികൾക്കും നമ്മൾ കൊടുക്കാറുണ്ട് ഇരുപത് വയസ്സ് വരെ പതിനെട്ട് ഇരുപത് വയസ്സ് വെരെ ഉള്ളവർക്ക് പുറത്ത് കളിക്കാൻ നമ്മളിവിടുന്ന് കൊണ്ടു പോകാറുണ്ട് അങ്ങനെയൊക്കെയാണ് പിന്നെ രാവിലെയും വൈകുന്നേരവും ഇവിടെ കോച്ചിങ്ങ് ഉണ്ട് രാവിലെ ഡെയിലി ഉണ്ട് ഡെയ്ലി എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരത്തുമുണ്ട് ഞായറാഴ്ച്ച മാത്രം ഉണ്ടാവില്ല ബാക്കി എല്ലാ ദിവസവും ഉണ്ട് അതെ ഉണ്ടല്ലോ രാവിലെ ഒരു ആറ് മണി ആറര തൊട്ടിട്ട് എട്ട് മണി വരെയും വൈകിട്ട് അഞ്ച് മണി തൊട്ടിട്ട് ആറര വരെയും ആണ് ഉള്ളത് രാവിലെ മെയിൻ ആയിട്ട് യോഗ കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെ ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങളും ഇതൊക്കെ ആയിരിക്കും വൈകുന്നേരത്ത് കളിക്കാനുള്ള ടീം ആക്കി ഫുൾ പ്രാക്ടീസ് ആയിരിക്കും വരിക പിന്നെ നമുക്ക് പുറത്ത് ആ നമുക്ക് വർക്കൗട്ട് ഇവിടെ ജിംനേഷ്യം ഉണ്ട് അപ്പോൾ അവിടെ വർക്കൗട്ട് അതിനുള്ള വർക്കൗട്ട് അവിടുന്ന് തരും പിന്നെ വ്യായാമ മറ്റേ കാലിനുള്ള വർക്കൗട്ട് നമ്മൾ ഗ്രൗണ്ടിൽ നിന്നും പിന്നെ പുറത്ത് ഹില്ല് കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് അപ്പുറത്താണ് കൊണ്ടുപോകുക ആ അവിടെ പോയിട്ട് ഉള്ള വർക്കൗട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ തരും അപ്പോൾ അതിൻ്റെ താഴെ അതിൻ്റെ താഴെത്ത് തന്നെ ഒരു അസിസ്റ്റന്റ് കൂടെയുണ്ട് മൂപ്പർ എല്ലാം എഴുതി സെറ്റ് ആക്കി തരും അപ്പോൾ ആ നമ്മൾ വെളിയിൽ കൊണ്ടുപോവാറുണ്ട് വെളിയിൽ കൊണ്ടുപോവുക പറഞ്ഞാൽ ജില്ല അങ്ങനെ സ്കൂൾ വൈസും ജില്ല വൈസും അങ്ങനെ കൊണ്ടുപോവാറുണ്ട് ആ പുറത്തും പോവാറുണ്ട് പുറത്തും ഇതേപോലെ ടൂർണമെന്റും മാച്ച് ഒക്കെ കൊണ്ടുപോവാറുണ്ട് ക്ലബ്ബുകൾക്ക് വേണ്ടിയിട്ടൊക്കെ നല്ലൊരു ഒപ്പർച്യൂണിറ്റി ആണിത് പിന്നെ ഇതിൽ ചേരുവാണെങ്കിൽ ഫസ്റ്റിൽ ചെറിയൊരു അഡ്മിഷൻ ഫീസ് ഉണ്ട് പിന്നെ നിങ്ങൾക്കും അതൊരു അറുനൂറ് രൂപ സംതിങ് വരുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണ്ട ഡ്രസ്സ് കോസ്റ്റ്യൂം കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യും അതിനുള്ള ക്യാഷ് തന്ന് പറഞ്ഞാൽ അല്ല പറഞ്ഞാൽ നിങ്ങൾ പുറത്തുനിന്ന് മേടിക്കേണ്ടി വരും അപ്പോൾ അതിപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് താൽപര്യം പറഞ്ഞാൽ അങ്ങനെ ചെയ്താൽ മതി ആ അത് അഡ്മിഷൻ ഫീസ് അറുനൂറ് പിന്നെ ഈ ഡ്രസ്സ് അതൊക്കെ അളവിനനുസരിച്ചിട്ട് എത്ര ഇഞ്ച് വേണം അതൊക്കെ നോക്കിയിട്ട് തീരുമാനിക്കാം മ് വീടിൻ്റെ അടുത്താണോ

അങ്ങനെ അത് മാസം നാനൂറ് രൂപയാണ് അഡ്മിഷൻ ഫീസ് മാത്രം സ്റ്റാർട്ടിങ്ങിൽ അറുനൂറ് രൂപ സംതിങ് വരുന്നുണ്ട് ഓക്കെ പിന്നെ വീടിവിടെ അടുത്താണോ അപ്പോൾ പോയി വരാൻ എങ്ങനെയാണ് ബസ്സിലാണോ അതോ ബസ്സ് ഉണ്ടോ ആ അപ്പം പിന്നെ കുഴപ്പമില്ലല്ലേ ഡൈയിലി വരാൻ പറ്റുന്ന കൂട്ടത്തിലാണ് പിന്നെ വരുന്നതിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വർക്കൗട്ട് വരുന്നത് പിന്നെ ശാരീരിക ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ വേറെ കളിക്കാൻ ഇല്ല ഓക്കെ ഇതുവരെ കളിക്കുന്നത് ഏത് പൊസിഷനിലാണ് എങ്ങനെയാണ് ഗോൾ കീപ്പർ ആണല്ലേ ഓക്കെ ഇതിന് മുമ്പ് എവിടെ എങ്കിലും കളിച്ചിട്ടുണ്ടോ എന്തെങ്കിലും എക്സ്പീരിയൻസ് എവിടെ

ഓക്കെ അപ്പം നമുക്ക് അഡ്മിഷൻ എടുക്കാം അങ്ങനെയൊക്കെയാണ് കളികൾ വരുന്നത് കളികളുടെ നിയമങ്ങളൊക്കെ അറിയില്ലേ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതൊന്നുമില്ല അപ്പോൾ അതൊക്കെ തന്നെയാണ് പിന്നെ എന്തായാലും ഫസ്റ്റ് ആയിട്ട് നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന ടൈമിൽ എല്ലാ ഡീറ്റേയിൽസും ഞാനൊന്ന് പറഞ്ഞ് തരുന്നതായിരിക്കും ഓക്കെ